മലയാള ഭാഷയുടെ സ്വാധീനം പൊതുവെ പഴയത് കാലക്രമേണ വച്ചു നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റേതായ പ്രസസ്തി കുറഞ്ഞിരിക്കുന്നു കാരണം അതിൻ്റെ വായന ശീലങ്ങൾ അതിൽ കൂടുതലായിട്ട് ഭാഷ ഉപയോഗങ്ങൾ ഇതൊക്കെ കുറവായിട്ടാണ് കാണുന്നത് പൊതുവെ കൂടുതൽ ഇംഗ്ലീഷ് സംസ്കാരം കടന്നു വന്നപ്പോൾ മലയാള സംസ്കാരത്തിലുണ്ടായ വ്യത്യാസങ്ങൾ ഒത്തിരിയാണ് ഇത് രണ്ടുംകൂടെ ചേർന്നിപ്പോഴൊരു മംഗ്ലീഷ് ഭാഷ രൂപത്തിലായിരിക്കയാണ് അപ്പോൾ അത് നമ്മൾക്ക് ആ ഭാഷയിലേക്ക് നമ്മുടെ ഭാഷ തിരിച്ച് കൊണ്ടുവരണം മലയാളത്തിലുള്ള സംസ്കാരങ്ങളും അതിൻ്റെ സ്വാധീനവും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പഴയ സ്വാധീനത്തിലേക്ക് കടന്നുവരണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒത്തിരി നമ്മളിൽനിന്നും സംസ്കാരങ്ങൾ അപഹരിച്ച് കൊണ്ടുപോയവരുമുണ്ട് മലയാളഭാഷ സംസ്കരിക്കപ്പെട്ടുപോയിട്ടുണ്ട് ഒത്തിരി പേരത് ഉപയോഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിലും ഇംഗ്ലീഷിൻ്റെ കടന്നു കയറ്റം വന്നപ്പോൾ ഇതിൻ്റെ സ്വാധീനത്തിലുണ്ടായ കുറവുകൾ പരിശോധിക്കുകയും അത് ഒന്നുംകൂടി പുനർചിന്തനം ചെയ്ത് നമ്മൾ കൊണ്ടുവരേണ്ടതും ഒരു കാലമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് നമുക്ക് എല്ലാവരും കൂടി കൂട്ടായിട്ട് പരിശ്രമിച്ച് മലയാള ഭാഷയുടെ ഒരു പുനരുദ്ധരണം നടത്തേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം